നമ്മുടെ പാലക്കാട് ജില്ലയില് കുറേ അധികം ഇപ്പോൾ നോക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഹരിതകർമ്മസേന അങ്ങനത്തെ കുറേ ടീമുകളുണ്ട് അതൊക്കെ എന്തിനാ വച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജില്ല ശരിക്കും നമുക്ക് കണാൻ നല്ല ഏറ്റവും അടിപൊളി ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ കൊല്ലങ്കോട് കൊല്ലങ്കോട് വേൾഡിലെ തന്നെ പൈ എന്താ പറയുക പരിസ്ഥിതി ഇതിന് നോക്കുവാണെങ്കിൽ പത്താം നമ്പറില് ഇടം പിടിച്ചൊരു സ്ഥലമാണ് നമ്മുടെ കൊല്ലങ്കോട് ജില്ല അവിടെ പക്ഷെ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അതുകൊണ്ട് തന്നെ അവടെ ആൾക്കാര് ഒരുപാട് ആൾക്കാര് അവിടെ ആ സ്ഥലം കൊല്ലങ്കോടെന്ന് പറയുന്ന സ്ഥലം കാണാനായിട്ട് വരുന്നുണ്ട് അത് നമുക്കൊരു നല്ല കാര്യമാണ് പക്ഷെ നമുക്ക് അതിൽനിന്ന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചു കഴിഞ്ഞാല് അവര് വരുമ്പോൾ അവര് കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് സാധനങ്ങള് ഒര് കവറുകൾ മറ്റ് അങ്ങനത്തെ മാലിന്യം അങ്ങനത്തെ സാധനങ്ങള് അവര് കൊണ്ടുവരുന്ന സമയത്ത് അതൊക്കെ അവര് അവിടെ ഇട്ടിട്ടു പോവുകയാണ് അത് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്ക് നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പൊതുവേ നമുക്ക് കണ്ടു വരുന്നൊരു വേസ്റ്റ് ഈ വേസ്റ്റ് ഈ ഇലക്ട്രോണിക് വേസ്റ്റ് ആണ് അത് നമുക്ക് അങ്ങനെ നശിപ്പിക്കാനോ ഒരു ഇതായിട്ടോ വേറൊരു കാര്യത്തിന് ഉപയോഗിക്കാനോ പറ്റാത്ത ഒരു ടൈപ്പ് മാലിന്യം ആണത് അതുകൊണ്ട് അത് ഈ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക്കിൻ്റെ കൂടുതലായിട്ടുള്ള ഉപയോഗം വരുന്ന കൊണ്ടും അത് കുറച്ച് കാലം ഉപയോഗിക്കുന്നു അടുത്തത് എടുക്കുന്നു അങ്ങനെയുള്ള രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാ ഉണ്ടാകണത് കൂ കൂടുതല് സാധനങ്ങള് ഇപ്പോൾ ഒരു സാധനം ഉപയോഗിച്ചു കഴിഞ്ഞു അതു കേടു വന്നു അല്ലെങ്കിൽ ആ ഒരു സമയം ആയിക്കഴിഞ്ഞാൽ അവര് അടുത്തത് എടുക്കുകയാണ് അപ്പോൾ അതിന് അത് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് അത് വീണ്ടും പുനരുപയോഗിപ്പിയ്ക്കാനോ അങ്ങനത്തെ പരുപാടി ഒന്നും നമുക്ക് സാധിക്കണില്ല അതില് അതാണ് ഇപ്പോൾ നമ്മുടെ ജില്ലയില് ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ പിന്നെ വനനശീകരണം കുറേ ഭാഗങ്ങൾ നമുക്ക് അത്യാവശ്യം നല്ല വനം ഉള്ള ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല അപ്പോൾ അവർ ഈ മരം മുറിക്കുന്ന ആൾക്കാര് തട്ടിപ്പ് അങ്ങനത്തെ ആൾക്കാര് വേറെ ആരും അറിയാതെ ഇപ്പോൾ നമുക്ക് വനം അതിനുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ അവരെന്താണ് അവരുടെ ഒക്കെ കണ്ണ് വെട്ടിച്ച് ഈ തുച്ഛമായർക്ക് അല്ലെങ്കിൽ തുച്ഛമായ പൈസയ്ക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടീട്ടു മരം മുറിച്ച് വിൽക്കുക അതുകൊണ്ടു എന്താ ഉണ്ടാവുക എന്നു പറഞ്ഞാൽ നമ്മൾ കാട്ടില് വസിക്കുന്ന മൃഗങ്ങൾക്ക് ഒരുപാട് ദോഷം ഉണ്ടാവും അങ്ങനെ പല പ്രശ്നങ്ങൾ ആണ് നമുക്ക് ഇപ്പോൾ പാലക്കാട് ജില്ലയിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്